ഹലോ ഹലോ ഇത് സഞ്ജയ് മാസ്റ്റർ അല്ലെ ഇത് നമ്മളെ ഒറ്റപ്പാലത്തുള്ള മറ്റെ ഫിറ്റ്നസ് സഞ്ജയ് മാസ്റ്റർ അല്ലെ ആ സാർ ഞാൻ ഞാൻ എൻ്റെ പേര് സാർ ഞാൻ ഇപ്പം ഒരു ബിടെക് വിദ്യാർത്ഥി ആണ് ആ സാർ ഞാൻ എനിക്ക് എന്താ ഇപ്പം ഒരു സാർ എനിക്ക് എനിക്ക് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മനസ്സിലായത് എനിക്ക് ഒര് സീറോ ഓഫ് മീൻസ് സീറോ ഫാറ്റ് ആവണം മീൻസ് പറയുമ്പം സ്ക്കിന്നി ഫാറ്റാണ് എനിക്ക് ഉള്ളത് ബൾക്ക് ആയിട്ട് ഒന്നും ഇല്ല എനിക്ക് ഫാറ്റ് കമ്പ്ലീറ്റ് ഡിപ്ലീറ്റ് ചെയ്ത് കളയണം ആ അപ്പം ഞാൻ ഇത് എന്നാണ് വന്ന് ചേരേണ്ടത് എത്രയാണ് കാലം എടുക്കും ഇത് ഒന്ന് മാറി കിട്ടാൻ അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം സാർ

ആ ആ ആ സാറെ അതേപോലെ നമ്മൾക്ക് എത്ര ദിവസമാണ് വീക്കിലി ഉണ്ടാവുക എത്ര ദിവസമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരിക ശനിയാഴ്ച ആ ആ ആ അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാന് തന്നിട്ട് നമ്മൾക്ക് ഫോളോഅപ്പ് ചെയ്യില്ലെ നമ്മളെ

ആ വെയിറ്റ് എടുക്കണം അല്ലെ

ഓ അങ്ങനെ ആണല്ലെ ആ വേറെ ഡൗട്ട്സ് എന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഇത് എത്ര മാസം എടുക്കും നമ്മൾക്ക് ഒരു വിസിബിൾ ആയിട്ടിള്ള ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട്

ആ ആ

ആണല്ലെ ആ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരിന്നു അപ്പം അവൻ ഇതേപോല ജിമ്മിൽ ഒക്കെ പോയിട്ട് അവന് എത്ര ആയിട്ടും ഒരു മാറ്റം കാണുന്നില്ല അപ്പം അത് ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നം തന്നെ ആവും അല്ലെ

ആ ആ വേറെ ഡൗട്ട്സ് ഉണ്ട് കാരണം എനിക്ക് ഇത് ഇപ്പം മൂന്ന് മിനിറ്റോളം സംസാരിക്കേണ്ടതാണ് അതുകൊണ്ട് ആ അടുത്ത ഡൗട്ട് എന്നു പറയുമ്പോഴെ വേറെ ഡൗട്ട്സ് ഉണ്ട് ഉണ്ട് ഉണ്ട് വേറെ ഡൗട്ട്സ് ഉണ്ട് വേറെ ഡൗട്ട്സ് ഉണ്ട് അതിൽ എന്താ വച്ചാൽ എനിക്ക് എന്താ നമ്മളിപ്പം ഒരു ഒരു ദിവസം ഇന്ന ദിവസം ഇത്ര മിനിറ്റ് എങ്ങനെ എത്ര മണിക്കൂറാണ് ഇത് വർക്കൗട്ട് ഒക്കെ ചെയ്യേണ്ടത് ആ ഓക്കെ ഓക്കെ അവിടെ സാർ സാർ ഇപ്പോൾ ജിമ്മിൽ ആണോ ആ ഞാൻ ഇപ്പം വർക്കൗട്ട് ചെയ്യണതിൻ്റെ ശബ്ദം കേട്ടു അതുകൊണ്ട് ചോദിച്ചതാണ് സാറെ ഇത് ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾക്ക് ഇപ്പം ഇത് ആനുവൽ ആയിട്ട് മീൻസ് ഒരു വർഷത്തേക്ക് ഉള്ള ഫീസ് ഇപ്പം അടക്കാം അങ്ങനെ ആണെങ്കിൽ കുറച്ച് കൂടി സൗകര്യം അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വേണ്ട പ്രോട്ടീനും ക്രിയാറ്റിൻ ഒക്കെ അവിടെനിന്നുതന്നെ കിട്ടുമോ പൈസ കൊടുത്താൽ

ആ അല്ല അവിടെ ഫിറ്റ്നസ് കോച്ച് ആയിട്ട് ഫിറ്റ്നസ് കോച്ച് ആയിട്ട് സാറ് മാത്രം ആണോ ഇള്ളത് മാസ്റ്റർ മാത്രം ആണോ ഉള്ളത് ആ അവര ഒക്കെ സർട്ടിഫൈഡ് ആണോ ആ ഓക്കെ സാർ എന്നാൽ ഞാൻ എന്നാൽ നാളെ മുതൽ വന്നു ചേരാം

ആ ആ ഓക്കെ ഓക്കെ സാർ എന്നാൽ നാളെ ഞാൻ വന്നിട്ട് ചേരുകയാണെങ്കിൽ ഓക്കെ ആ ശരി ആ ആ ശരി ഓക്കെ ഓക്കെ താങ്ക് യു സാർ